ഓക്കെ ആ ഞങ്ങളെ പിന്നെ നമ്മളൊര് കോയമ്പത്തൂര് നിന്ന് വരുന്നെയാണ് ഒരു ട്രിപ്പിന് വേണ്ടി വരുന്നതാണ് ഓൾ കേരളാ അപ്പം ആ നമ്മള് കോഴിക്കോടാണ് അതായത് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്ന അപ്പം നമ്മള് ട്രെയിനിലാണ് വരുന്നത് ഒരു നാപ്പത് പേരുണ്ട് അപ്പം നമ്മള് അപ്പം കോഴിക്കോട് ടോപ്പ് ഫാമ് റെസ്റ്റോറന്റ് നമ്മള് എന്തെങ്കിലും ഓഡറ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പം നമുക്ക് നൈറ്റ് ഫുഡ് വേണം അപ്പം നിങ്ങള് എത്ര സ നിങ്ങളുടെ ക്ലോസിങ്ങ് ടൈമ് എപ്പഴാണ് നൈറ്റ്

ആണല്ലേ ആ ആ അങ്ങനെയാണങ്കിൽ ഞങ്ങളൊരു ഒമ്പതര വരെ ഒമ്പതരയൊക്കെ ആകുമ്പഴാണ് അവിടെ എത്തുക അതായത് കോഴിക്കോട് പിന്നെ റെയിൽവേ സ്റ്റേഷനില് അപ്പം അങ്ങനെയാണെങ്കില് ഒരു പത്തരയൊക്കെ ആകും നിങ്ങടെ അടുത്തെത്താൻ അപ്പം നമ്മള് നാപ്പത് പേരുണ്ടാവും അപ്പ ഫുഡ് ഓഡറ് ചെയ്ത അതായത് ഫുഡ് നേരത്തെ ഓഡറ് ചെയ്ത് വെയ്ക്കാൻ വേണ്ടിയായിരുന്നു അപ്പം അവിടെ എന്തൊക്കെയാ ബിരിയാണി ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് ആണല്ലേ ആ ആ ആ ആണല്ലേ അ ആ ആ നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് സദ്യ വേണ്ട നമുക്കെന്തെങ്കിലും ബിരിയാണിയോ അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ട അല്ലെങ്കിൽ നമുക്ക് പൊറോട്ട മതി പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവോ അല്ലെങ്കില് ചില്ലി ചിക്കൻ അങ്ങനെന്തെങ്കിലും മതി അങ്ങനന്നെ ഞങ്ങൾക്ക് നാപ്പത് നാപ്പത് പേർക്ക് പാകത്തിന് ഒരാക്കൊരു രണ്ട് പൊറോട്ട വെച്ചിട്ട് അങ്ങനൊരു ഒരു കണക്കില് ആ എൺപത് പൊറോട്ട പൊറോട്ടാന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ മീറ്റ് പൊറോട്ട ഉണ്ടാവില്ലേ ആ ആ ആ അപ്പം നമുക്ക് അങ്ങനാണെങ്കില് രണ്ടും കൂടെ മിക്സ് ആക്കീട്ടൊരു അല്ല അപ്പഴത്തേക്കിണ്ടാവില്ല അല്ലേ അല്ലെങ്കിലും അല്ലേ നമ്മള് വന്നാലല്ലേ നിങ്ങളുണ്ടാക്കി തരിക അപ്പം കുഴപ്പം ഇല്ലല്ലോ ആ ഞങ്ങള് വന്ന് കഴിഞ്ഞിട്ട് മതി അപ്പം നമുക്കറിയില്ലല്ലൊ എത്രേം മീറ്റ് പൊറോട്ട എത്ര വേണമെന്നൊന്നും അറിയില്ലല്ലോ അപ്പ പൊറോട്ട മതി പിന്നെ ചില്ലി ചിക്കനോ അല്ലെങ്കില് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെന്തെങ്കിലും മതി

ആ മതി മതി മതി അങ്ങനെയാണേൽ ഞങ്ങള് അഡ്വാൻസ് എത്ര വേണ്ടി വരും

ഞങ്ങളൊരു ആ ഓക്കെ ഓക്കെ അഞ്ഞൂറ് രൂപ ഞങ്ങളെന്നാൽ ഗൂഗിൾ പേ ചെയ്ത് തരാമേ ഈ നമ്പറിലല്ലേ ഗൂഗിൾ പേ ഉണ്ടോ ആ അങ്ങനെയാണേൽ ചെയ്യാട്ടോ ആ ഓക്കെ എന്നാൽ